കഴിഞ്ഞ ആഴ്ച്ചയിൽ എൻറെ കൂട്ടുകാരിയുടെ അച്ചാച്ചനേയും കൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അവിടെ വെച്ച് എനിക്കൊരു മോശമായ അനുഭവം ഉണ്ടായി കൂട്ടുകാരിയുടെ അച്ചാച്ചന് വലിയ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ടായിരുന്നു പോയത് അപ്പോൾ മെഡിക്കൽ കോളേജിൽ ചെന്നുകഴിഞ്ഞാൽ എല്ലാത്തിനും എളുപ്പമാണെന്ന് എല്ലാവരും പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞ് അവർ ഓപ്പറേഷന് ഡേറ്റ് പറഞ്ഞു ഈ ആഴ്ച്ചയിൽ വന്ന് ഓപ്പറേഷൻ ചെയ്യാം മൂന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ വരണം വന്നിട്ടെല്ലാം ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു മൂന്നാം ദിവസം പോകുന്നതിൻറെ അന്ന് രാവിലെ അവർ വിളിച്ചിട്ട് പറഞ്ഞു ഇത് പറ്റില്ല ഇനി അടുത്ത ആഴ്ച്ചത്തേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ഓരോ ദിവസവും ഓരോരോ കാരണങ്ങൾ പറഞ്ഞവർ നീട്ടി നീട്ടിക്കൊണ്ട് കൊണ്ടിരിക്കുകയായിരുന്നു പാവങ്ങളായ അവർക്ക് പൈസ ഒന്നും ഇല്ലാതെ ഉയർന്ന ചികിത്സാ ചിലവ് നടത്താനായിട്ട് അവർക്ക് സാഹചര്യം ഇല്ലായിരുന്നു അവർ ഇവിടെ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടതായിരുന്നു കണ്ടപ്പോൾ അവർ പറഞ്ഞു മൂന്നരലക്ഷം രൂപ ഓപ്പറേഷന് ഫീസ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല നമുക്ക് എന്നാൽ മെഡിക്കൽ കോളേജിന് പോകാം അവിടെ പോയാൽ പൈസ കുറവ് മതിയല്ലോ നമുക്ക് അവിടെ ചെന്ന് ചികിത്സ നടത്താമെന്ന് പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഇതുപോലെ ഒക്കെയാണ് നമ്മളോട് പറയുന്നത് പിന്നെ ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള ആൾക്കാരെ വിളിച്ച് അവരെ കൊണ്ട് പറയിപ്പിച്ചിട്ടാണ് ഇന്നലെ ഓപ്പറേഷൻ നടത്തിയത് ഓപ്പറേഷൻ നടത്താൻ നേരം അവിടെ ഒരാൾ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു വലിയ പൈസയൊന്നും ചിലവില്ല എന്നാലും കൊടുക്കണമെന്ന് പറഞ്ഞു അത് കൊടുത്തു അവരെ അഡ്മിറ്റ് ആക്കി ഇന്നലെ ഓപ്പറേഷൻ നടത്തി ഇന്നത് ഓപ്പറേഷൻ നടത്തി അത് അപ്പോൾ അവിടെ നിൽക്കുന്ന ആളുകൾക്ക് ബ്രഡ് മുട്ട പാൽ എന്നിവ കൊടുക്കും എന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ ഭക്ഷണം പി യു തോമസിൻറെ ഭക്ഷണം പിന്നെ പാക്കറ്റ് വരുമെന്ന് പറഞ്ഞു അത് ചെന്നു വാങ്ങിക്കാൻ ചെന്നേക്കുമ്പോൾ ഭയങ്കര ക്യൂ ആണ് അത് വലിയ ബുദ്ധിമുട്ടാണ് ചില ദിവസങ്ങളിൽ അവർക്ക് പാലും മുട്ടയൊന്നും കിട്ടാറില്ല അത് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ നമുക്കൊട്ടും നിൽക്കാനും പറ്റില്ല നമ്മളെ കൊണ്ട് താങ്ങാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ ഈ ക്യൂ നിന്ന് നിന്ന് നിന്ന് നമ്മൾ ബുദ്ധിമുട്ടും പിന്നെ വലിയ മരുന്നുകളൊക്കെ ഒരു കൂടുതൽ പൈസയൊക്കെ ഉള്ള മരുന്നുകൾ എല്ലാം അവർ പുറത്തേക്ക് കുറിച്ച് തരികയാണ് അത് കുറിച്ച് തന്ന് മേടിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിലെ പൈസ ഒന്നും തികയാതെ വരും അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പോയിട്ടാണ് ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത് ഞങ്ങളും ഞങ്ങളുടെ അടുത്തുള്ള ഓരോരുത്തരും പൈസ സാമ്പത്തികമായിട്ട് സഹായം ചെയ്ത് അവർ സാമ്പത്തിക സഹായം ആ സാമ്പത്തിക സഹായം ചെയ്തിട്ടാണ് അവർക്ക് ഈ ഓപ്പറേഷന് പോലും സാധിച്ചത് അങ്ങനെ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ എല്ലാ തരത്തിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലാണെങ്കിൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എല്ലാ കാര്യങ്ങളും ഓപ്പറേഷൻ പറഞ്ഞാൽ ആ ഓപ്പറേഷൻ ആ ദിവസം തന്നെ നടക്കും പ്രൈവറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ ഇതാണ് നമ്മുടെ ഒരു ബുദ്ധിമുട്ട് അല്ല അങ്ങനെയൊക്കെ ഒത്തിരി മോശകരമായ അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത് പിന്നെ പിന്നെ ഓരോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ അവിടെ ചെല്ലുമ്പം നമ്മുടെ ആ നമ്പർ അനുസരിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണെങ്കിൽ വിളിക്കും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അങ്ങനെയൊരു ബുക്കിങ്ങ് ഇല്ല അത് പിന്നെ ആ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഓർക്കുമ്പോൾ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ നോക്കും പാവപ്പെട്ടവരായ മനുഷ്യർക്ക് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ സാധിക്കണം എന്നുള്ളതുകൊണ്ട് അവർ അവിടെ നിന്ന് ആ ക്യൂവിൽ നിന്ന് വെയിലും കൊണ്ട് നിന്ന് കാര്യങ്ങളെല്ലാം നടത്തി രാവിലെ പോയാൽ രാത്രിയോ വൈകുന്നേരം ആകുമ്പോഴാണ് തിരിച്ച് വരുന്നത്